ഹലോ പറഞ്ഞോളൂ ആണോ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആണല്ലേ ഫിഷ് ഫുഡ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫുഡ്ഡ് ആണ് ഉണ്ടാവുക ഒന്ന് കടൽ കടൽ മത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലം പിന്നെ നമുക്ക് പുഴ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കായൽ മത്സ്യങ്ങൾ അങ്ങനെ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ഫുഡ്ഡ് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴയിലാണെങ്കിൽ ആ ആലപ്പുഴയിലാണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ പ്രധാന ഫുഡ്ഡായ കരിമീൻ കരിമീൻ അതിൻ്റെ വെറൈറ്റികൾ ഒരുപാട് നമുക്ക് അവിടെ കിട്ടും കരിമീൻ പൊള്ളിച്ചത് കരിമീൻ വറുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് അത് ആലപ്പുഴയിൽ നമ്മുടെ ഈ ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൗസ് ബോട്ടുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഫിഷ് ഫുഡ് ഐറ്റംസ് എന്നുപറഞ്ഞാൽ ഞണ്ട് കൊഞ്ച് ഏഹ് അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ കിട്ടും അതുപോലെത്തന്നെ നമുക്ക് കടൽ മത്സ്യങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടാൻ നമ്മുടെ ഈ കടലോരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നല്ല റെസ്റ്റോറൻ്റുകളിൽ നമുക്ക് അത്തരത്തിലുള്ള ഇത് കിട്ടും പിന്നെ നമുക്ക് വയനാട് ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് മീൻ വളർത്തു മീനുകൾ കിട്ടുന്ന വളർത്തു മീനുകളെ പോയി നമുക്ക് ഇഷ്ടമുള്ള മീനുകളെ പിടിച്ച് അവിടെ വളർത്തുന്ന ഒരു അഞ്ച് ഏക്കർ പത്ത് ഏക്കർ സ്ഥലങ്ങളിലൊക്കെ വലിയ കുളങ്ങളുണ്ടാക്കി അവർ വളർത്തുന്ന മീനുകൾ ചെമ്പല്ലി അതുപോലെത്തന്നെ പിലോപ്പി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ പിടിച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുതന്നെ അത് നമ്മൾ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമൂള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉടനീളം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഫിഷ് ഫുഡ് ഫേമസ് ആണ് കൊഞ്ച് ചെമ്മീൻ പിന്നേ ഞണ്ട് കരിമീൻ അങ്ങനെ ഒരുപാട് ഇനം മൽസ്യങ്ങൾ നമുക്ക് കേരളത്തിലുടനീളം കിട്ടും പ്രധാനമായിട്ടും നമുക്ക് ആഹ് ചെമ്പല്ലി ചെമ്പല്ലി നമുക്ക് വയനാട് ജില്ലയിൽ തന്നെ കിട്ടാൻ സാധ്യത ഉള്ള ഒരു മീനാണ് അതിൻ്റെ പ്രത്യേകതയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴമീൻ ആയതുകൊണ്ട് ചെമ്പല്ലി ആണ് അതിനകത്ത് ഒരു നല്ല വെറൈറ്റി മീൻ എന്നു പറയുന്നത് ചെമ്പല്ലി തന്നെ ആണ് ചെമ്പല്ലി നമ്മുടെ ഫിഷ് മാർക്കറ്റുകളിൽ ബത്തേരിയിലും അതുപോലെത്തന്നെ കൽപറ്റ ഉടനീളമുള്ള എല്ലാ ഫിഷ് മാർക്കറ്റിലും ചെമ്പല്ലി പോലുള്ള മീനുകൾ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഫിഷ് കറിവെച്ച് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ നമുക്ക് ബത്തേരിയിലോ അല്ലെങ്കിൽ കല്പറ്റയിലോ ഉള്ള നല്ല ഹോട്ടലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ ഭക്ഷണം നമുക്ക് ലഭിക്കും